ഞാന് സാധാരണമായി പശുവിനെ വളര്ത്തുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ പച്ചപ്പുല്ല് മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ പിന്നെ വല്ലപ്പോഴും നമ്മൾക്ക് പുല്ല് തികയാതെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ കച്ചി മേടിച്ച് ഞങ്ങൾ കൊടുക്കാറുള്ളു എങ്കിലും ഞങ്ങളുടെ നാട്ടുംപുറം ആയത് കൊണ്ട് എപ്പളും തന്നെ പുല്ലൊക്കെ കാണും പിന്നെ ഭയങ്കര ഉണക്കിന്റെ സമയത്ത് മാത്രമേ നമ്മൾക്ക് അത് പുല്ല് നമ്മൾ കച്ചി മേടിച്ച് ഞങ്ങൾ കൊടുക്കാറുള്ളു പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം നമ്മൾക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാനായി പച്ചപ്പുല്ല് തന്നെ കൊടുക്കുന്നതിലാണ് ഞങ്ങള്ക്ക് താല്പ്പര്യം അതുകൊണ്ട് നമ്മൾ അല്ലെങ്കില് എന്ന പുല്ല് വച്ചു പിടിപ്പിച്ചിട്ട് ആണെങ്കിലും ഞങ്ങൾ അങ്ങനെതന്നെ ചെയ്യാറുണ്ട് അങ്ങനെ ഇതുവരെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒത്തിരി ഉണക്കിന്റെ സമയം വരുമ്പം മാത്രമേ ഞങ്ങൾ ഇങ്ങനെ കച്ചി മേടിച്ച് കൊടുക്കാറുള്ളു നമ്മൾക്ക് എപ്പളാണേലും നമ്മുടെ നാട്ടിലുള്ള പച്ചപ്പുല്ല് കൊടുത്ത് കഴിയുമ്പോളാണ് അവര്ക്ക് ഒരു മൃഗങ്ങള്ക്ക് നല്ലതുമാണ് അവര്ക്ക് പാൽ ഉത്പാദനത്തിനാണെങ്കിൽ എല്ലാ കാര്യങ്ങള്ക്കും നമ്മൾക്ക് കിട്ടാൻ ഉള്ളത് പച്ചപ്പുല്ല് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ നാട്ടിന്പുറം ഒക്കെ ആയത് കൊണ്ട് എപ്പോഴും പുല്ലിന്റെ സമയം ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾക്ക് അത് ഞങ്ങൾ അത് മാത്രമേ കൊടുക്കാറുള്ളു പിന്നെന്തുവാണ് പിന്നെ നമ്മൾ എന്താണ് കുടിയെക്കെ കൊടുക്കുകയും അങ്ങനെ ഇത് പ്രസവിച്ചു നിൽക്കുന സമയ ത്തൊക്കെ മാത്രമേ ഞങ്ങൾ പയർ വര്ഗങ്ങളെല്ലാം കൂടെ മേടിച്ച് പൊടിച്ച് കൊടുക്കാറുണ്ട് അവര്ക്ക് തണുപ്പിന് നല്ല സാധനവാണ് പയർ വർഗ്ഗങ്ങൾ ഒക്കെ മേടിച്ച് നമ്മൾ പൊടിച്ച് കൊടുക്കുക എന്നുള്ളത് പിന്നെ ഉണക്കാവുന്ന സമയത്താണെങ്കില് പോലും നമ്മൾ പയർ വര്ഗങ്ങൾ പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവര്ക്ക് ചെറിയൊരു തണുപ്പും ഒക്കെ കിട്ടും എന്നാൽ പോലും പക്ഷെ നമ്മൾ പച്ചപ്പുല്ലാണ് ഞങ്ങള് സാധാരണ ഉപയോഗിക്കാറുള്ളത് പാൽ ഉൽപാദനത്തിനാണെങ്കിലും നമ്മൾക്ക് പച്ചപ്പുല്ല് കൊടുക്കു ന്നത്രേം പാൽ നമ്മൾക്ക് ഏത് ഇത് കൊടുത്താലും നമ്മൾക്ക് കിട്ടാന് സാധ്യത കുറവാണ് ഞങ്ങൾ വര്ഷങ്ങള് പതിനഞ്ച് വര്ഷമായിട്ട് ഞാന് പശുവിനെ വളര്ത്തുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി നല്ലപോലെ അറിയാം ഞങ്ങൾ പിന്നെ പോദയൊക്കെ വച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെയാണ് അല്ലാതെ നമ്മൾ ഉണക്കപ്പുല്ലൊന്നും ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മൾ മേല് അത്ര ഇതാണെങ്കിൽ മാത്രം നമ്മൾക്ക് കൊടുക്കാം ഇപ്പം എന്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ട് എവിടെ എങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കില് മാത്രം നമ്മൾ കച്ചിയൊക്കെ ഇറക്കി വയ്ക്കാറുള്ളു എന്നാലും നമ്മൾ പരമാവധി പച്ചപ്പുല്ല് തന്നെ കൊടുത്ത് വളര്ത്തുന്ന ആള്ക്കാരാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല പിന്നെ തണുപ്പ് ആണല്ലോ അതുങ്ങള്ക്കും എപ്പോഴും ചൂടല്ലേ അതുങ്ങള്ക്ക് തണുപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് അല്ലാതെ വേറെ ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഞങ്ങൾക്കും പശുക്കളെ വളര്ത്തുന്നത് കൊണ്ട് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് വിവരങ്ങൾ അറിയാം എത്ര എന്ത് കൊടുത്താലാണ് അവര്ക്ക് തീറ്റിയും കുടിയും കൊടുത്താലാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നും എല്ലാ വിവരവും ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അത് ചെയ്യാറുണ്ട് പിന്നെ വേറെ ഒന്നും നമ്മൾ കൊടുക്കാറുമില്ല ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പുല്ല് കൊടുത്ത് വളത്തുന്നതാണ് ഞങ്ങളുടെ ഇതിലെ എല്ലാവർക്കും പുല്ലാണ് പശുവിനെ എല്ലാം പുല്ലാണ് ആടിനാണെങ്കിലും ഞങ്ങൾ പുല്ല് മാത്രമേ കൊടുക്കാറുള്ളു